നല്ല നിലവാരമുള്ള കോഴികളെ ആണെങ്കിലും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ഒരു നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ നല്ല ഡോക്ടർമാരോട് വെറ്റ്നറി ഡോക്ടർമാരോട് നമ്മൾ തിരക്കും അത് എല്ലാ എങ്കിൽ ഇതിന് കൂടുതൽ പ്രാഗൽഭ്യമുള്ളത് ഇത് വളർത്തി പരിചയമുള്ള ആൾക്കാരോട് നമ്മൾ തിരക്കും അല്ലെങ്കിൽ ഇതിനെ പ്രത്യേകം ഏറെ ഇട്ട് വളർത്തുന്ന ഫാമുകളൊക്കെ ഉണ്ടല്ലോ അവിടെയുള്ളവരോട് നമ്മൾ തിരക്കും നല്ല ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്

അങ്ങനെ നമ്മൾ തിരിച്ചറിയും പിന്നെ പിന്നെ അത് പിന്നേ നമ്മൾക്ക് അത് നല്ലതാണ് നമുക്ക് കൂടുതലും അങ്ങനെ നല്ലത് അറിയണമെന്നുണ്ട് ആവശ്യമുള്ളത് എന്ന് വച്ചാൽ നമുക്ക് വേറെ മുട്ട കിട്ടണം അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ എല്ലാ ഡെയിലി മുട്ടയിടുന്ന കോഴികൾ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അനെയുള്ളവരെ പിന്നെ നമ്മൾ ഇറച്ചി കോഴികളായിട്ട് തെരഞ്ഞെടുക്കുക ആണെങ്കിൽ നല്ല ഇറച്ചി ഉള്ള അതായത് നമ്മൾ ഇപ്പം ആഹാ ഭക്ഷണമോ തീറ്റകൊടുത്ത് കഴിഞ്ഞാൽ അതിന് നല്ലതായിട്ട് ഇറച്ചി കിട്ടുന്ന കോഴികളെ അങ്ങനെ ഉള്ളതിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന നമുക്ക് കൂടുതൽ വരുമാനമുള്ളവയല്ലേ നമുക്ക് കൂടുതൽ ആവശ്യമായിട്ടു വരിക അപ്പം നമ്മൾ കൂടുതൽ വരുമാനമുള്ളവയെ നോക്കി തിരഞ്ഞെടുക്കണമെന്നുങ്കിൽ നല്ല ഇനത്തിൽ പെട്ടവയെ തിരഞ്ഞെടുക്കണം എന്നാലേ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകത്തുള്ളൂ പിന്നേ അയിനകത്ത് പറയാനായിട്ട് പിന്നെ അതുങ്ങൾക്ക് നല്ല നമ്മൾ ഇപ്പം നല്ല തീറ്റകൾ അതായത് നല്ല നല്ല രീതിയിൽ അതുങ്ങൾക്ക് തീറ്റ കൊടുത്തേക്കുക നമ്മൾ പച്ചിലയും മറ്റുള്ള ഇതൊക്കെ കൊടുത്ത് നമ്മൾ അതിനെ അത് കോഴിത്തീറ്റ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നില്ല നമ്മുടെ വീട്ടിൽ ഉള്ളത് കൂടുതൽ കൊടുത്ത് അഴിച്ചു വിട്ട് വളർത്തുന്നതിനോടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് അപ്പം അങ്ങനെ അല്ലാത്തവർക്ക് നമ്മൾ അത് കഴിയുന്നതും നമ്മൾ അത് നമ്മൾ പുറത്തു നിന്ന് തീറ്റ വാങ്ങിച്ചു കൊടുക്കുന്നത് കൊടുത്ത് നമ്മൾ നോക്കും പിന്നെ കൂടുതൽ അതുങ്ങൾക്ക് ഇപ്പം നമ്മടെ വീട്ടിൽ വീട്ടിൽ വളർത്തുമ്പോൾ നമ്മൾ അതുങ്ങൾക്ക് പുറത്ത് ഇറങ്ങി വിടുന്നവയാണെങ്കിൽ നമ്മൾക്ക് അതിന് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരികയില്ല കാരണം അത് പുറത്ത് ഇറങ്ങി പോയി ഇപ്പം കല്ലും മണ്ണും പച്ചിലയുമെല്ലാം കഴിച്ചു അത് വളരുന്നതു കൊണ്ട് നമുക്ക് അത്രയും ബുദ്ധിമുട്ട് ഏത് സമയവും പിടിക്കുമ്പോൾ കൂട്ടിൽ ഇട്ട് വളർത്തുന്നവയാണെങ്കിൽ അതുങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ പുറത്ത് നിന്നുള്ള അതിനുള്ള മരുന്നും മറ്റുമുള്ള തീറ്റകളും അതിനുള്ള എല്ലാ കാൽസ്യവും എല്ലാ സാധനങ്ങളും നമ്മൾ

എങ്ങനെ രീതിയിലും ഒരു യാതൊരു വിധ അസുഖവും മറ്റൊന്നും വരാത്ത രീതിയിൽ നമുക്ക് നല്ല ഒരു വരുമാനം എപ്പോഴും നമുക്ക് അവരെകൊണ്ട് ആദായം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഏത് മൃഗങ്ങളെ ആണേലും വളർത്തുന്നവവയാണ് നമുക്ക് എപ്പോഴും നല്ലത് അതുകൊണ്ട് നമ്മളെ എപ്പോഴും ഇപ്പം നല്ല ഇനത്തിൽപെട്ടവയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെയൊന്നും ബുദ്ധിമുട്ട് അത്രയും വരില്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള നല്ലത് എപ്പോഴും നമുക്ക് എന്നെ ഏത് ക്ലയിമെറ്റിനും അതുങ്ങളെ വളർത്താൻ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് നമ്മുടെ രീതിയിൽ വളർത്താൻ പറ്റുന്നവയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളവയെ തെരഞ്ഞെടുത്ത് വളർത്തുന്നതിനോടാണ് വളത്തുന്നതിനോട് താൽപര്യം കാണിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ നല്ലത് ഇനത്തിൽ പെട്ടവയെ നോക്കി ഒരു ഡോക്ടറുടെ അഭിപ്രായമായിരിക്കും ഏറ്റവും ബെറ്റ്റ്